എനിക്കാണെങ്കിൽ പാട്ടുകൾ കേൾക്കാനും അതുപോലെ പാട്ടുകൾ പാടാനും ഭയങ്കരമായിട്ട് താൽപര്യം താൽപര്യം താല്പര്യം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പാട്ട് കേൾക്കുമ്പം കുറെ എൻ്റെ മൈൻഡ് ഒക്കെ റിലാക്സ് ആകുന്നുണ്ട് ഞാനാണെങ്കിൽ എന്താ ചില സമയത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് പാട്ടുകൾ കേട്ടാൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വിഷമം ഒക്കെ എനിക്ക് മാറി കിട്ടും അല്ലെങ്കിൽ സ്ട്രെസോട ക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും എൻ്റെ മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആകും അതുപോലെ എനിക്ക് ഭയങ്ക ഇൻ്ററെസ്റ്റാണ് പാട്ടുകളൊക്കെ കേൾക്കാനും പാട്ടുകൾ പാടാനും എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ കൽ ഹോന ഹോ എന്ന് പറയുന്ന പാട്ടാണ് അതാണെങ്കിൽ അത് അതുപോലെ ആ ഒരു പാട്ടിൻ്റെ പ്രസൻറ്റേഷനും കാര്യവും അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് അതിൻ്റെ ആ ഒരു പാട്ട് പാടിയേക്കുന്നതൊക്കെ ആ ഒരു ഭയങ്കര ഒരു നമുക്ക് എ നമ്മളെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അതിനകത്താണെങ്കിൽ അതിൻ്റെ ഓരോ ലൈൻ്റെ മീനിങ്ങ്സ് എടുത്താലും നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ആ ഒരു പാട്ടിൻ്റെ ഓരോ ലൈൻസും കാര്യങ്ങളും ഒക്കെയായിട്ട് ഉള്ളത് ആ അപ്പം അതിൻ്റെ ആ പാട്ട് പാടിയിരിക്കുന്നത് സോനു നിഗം ആണ് സോനുവിൻ്റെ സൗണ്ടാണെങ്കിലും അത്രയ്ക്ക് പ്രഷ്യസായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് അതിലേയ്ക്ക് നമ്മൾ അഡിക്റ്റടായി പോകുന്ന രീതിയിലൊരു സൗണ്ടാണ് ആൾടേത് അതുപോലെ തന്നെ ആ പാട്ടാണങ്കിലും അത്രയ്ക്ക് നല്ലൊരു പാട്ടാണ് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്ക് അതിങ്ങനെ കേട്ടോണ്ടിരിക്കാനും നമുക്കൊരു ബോറായിട്ട് നമുക്ക് തോന്നില്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരു അതിനോട് മാത്രമല്ല നമുക്കാണെങ്കിൽ പാട്ടിന് നമുക്കിങ്ങനെ കേട്ടിരിക്കാം നമുക്കെപ്പോഴും അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് കേട്ടാൽ ഭയങ്കരൊരു റിലാക്സേഷൻ നമുക്ക് തോന്നും അല്ലെങ്കിൽ അതിനകത്താണെങ്കിൽ ഭയങ്കര എന്താ പറയാ ലവ്വിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ആ പാട്ടിനകത്ത് ലൈൻസും കാര്യങ്ങളും ഒക്കെ മീൻ ചെയ്യുന്നത് നമുക്ക് എന്താ നമുക്ക് ഒരിക്കലൂം ഒരു ബോറായിട്ട് നമുക്ക് ഫീലെയ്യത്തേ ഇല്ല ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാലും ഭയങ്കര നമുക്കൊര് ഭയങ്കര നമുക്കതിലേക്ക് നമ്മൾ ഇൻ്ററസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാട്ടിലേയ്ക്ക് ഫുൾ കോൺസൻട്രേഷൻ കൊടുത്ത് ഫോക്കസ്ഡ് ആയിരിക്കും നമുക്ക് വേറൊരു നമുക്കൊരു വേറെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യത്തും ഒന്നൂല ഒന്നെങ്കിൽ നമ്മൾ വേറൊരിതിലേക്ക് ഡിസ്ട്രാക്റ്റ് ആയി പോവത്തില്ല നമ്മൾ ആ ഒരു പാട്ടിലേക്ക് ഫുൾ കോൺസൻട്രേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നമുക്ക് മൈൻഡ് റിലാക്സേഷൻ ആയിട്ട് നമക്ക് ഫീലെയ്യും ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങനൊരു പാട്ടാണത് എനിക്ക് എൻ്റെ ഫേവറേറ്റായിട്ടുള്ള ഒരു പാട്ടാണത് പിന്നെ അതിൽ അഭിനയിച്ചേക്കുന്ന ആളാണെങ്കിലും എനിക്ക് ഫേവറേറ്റായിട്ടുള്ള ഒരാക്റ്ററാണ് അതുകൊണ്ടും ഒക്കെ കൂടെ ആയിരിക്കും എനിക്ക് ആ ഒരു പാട്ടിനോട് അത്രയ്ക്ക് താല്പര്യം ഉള്ളത് എനിക്കത് ആ ഇപ് എനിക്ക് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ എപ്പോഴും കേൾക്കും ആ പാട്ട് എനിക്കാണെങ്കിൽ എത്ര കേട്ടാലും എനിക്കത് മതി വരില്ല ഒരു ബോറടിക്കാനായിട്ടോ അല്ലെങ്കിൽ മടുത്തു അങ്ങനൊരു ഫീൽ എനിക്ക് ഇത് വരെ ആയിട്ടും ഉണ്ടായിട്ടില്ല ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എന്താ പറയാ എനിക്ക് വാക്കുകളില്ല അതുപോലെ അത്രയ്ക്ക് നല്ലൊരു പാട്ടാണത് നമുക്കിങ്ങനെ കേട്ട് നമുക്ക് ആ ഇപ്പം നമ്മൾ ഇപ്പം ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മടുപ്പ് തോന്നും ഇനി ഇപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കണ്ട അല്ലെങ്കിൽ കുറെ ആയില്ലേ നമ്മൾ ഇത് കേൾക്കുന്നു ബോറാകും അങ്ങനെ നമുക്ക് ആ ഒരു ഫീൽ അതിനകത്ത് വരത്തേ ഇല്ല ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു പാട്ടാണത്